ഹലോ ഹലോ നമസ്ക്കാരം ആ ചെയ്യുന്നുണ്ടല്ലോ നമുക്ക് പെഡിക്യൂറിങ് തന്നെ വരുമ്പോൾ അഞ്ഞൂറ് രൂപയും മാനിക്യൂറും കൂടി വരുമ്പോൾ ഓ ശരി കൂടി വരുവാണെങ്കില് അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത്

ആ മൻ അത് അ അങ്ങ് അതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നു വെച്ചാൽ ഓയിലി സ്കിൻ ഉള്ളവർക്ക് പ്രത്യേകതരം ട്രീറ്റ്മെൻറ്റാണ് നമ്മള് കൊടുക്കാറ് അത് ഡൈ ഡ്രൈ സ്കിന്നിൽ വരുമ്പോൾ അതിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതാ വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഓഫർ ഓഫര് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റെയ്റ്റ് കുറവായിരിക്കും അപ്പോൾ നമ്മള് ഗുഡ് ക്വാളിറ്റി സാധനം നമ്മള് ഇത് ചെയ്ത് പോകുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ ചെയ്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൺ ഹവറൊക്കെ എടുക്കും ആ എന്നുവച്ചാൽ നെയിൽ എക്സ്ടെൻഷനും നെയിൽ എക്സ്ടെൻ നെയിൽ എക്സ്ടെൻഷനും നമ്മള് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കൂടെ ചെയ്ത് ഒരു ഹാ ഒരു ഫുൾ പാക്കേജിനാണ് നമ്മളുടെ പെഡിക്യൂറും മാനിക്യൂറും ഫുൾ പാക്കേജിനാണ് അറുന്നൂറ്റി അമ്പത് രൂപ വരുന്നത് കോംബോ ഓഫറാണെ ഹലോ ഓക്കെ ആ പിന്നെ നമുക്കിവിടെ ആ എന്തോ നമുക്ക് ഷോപ്പ് എട് പത്ത് മണിത്തൊട്ട് ഷോപ്പ് ഓപ്പണാകും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും വരാം നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടാണെങ്കിലും വരാം അതുകൂടാതെ തന്നെ വേറെ പലതരം പലതരം ഹെയർ ഹെയർ ട്രീറ്റ്മെൻറിനാണെലും സ്കിന്നിനാണേലും നമ്മൾ ഇവിടെ ഓഫർസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷോപ്പിലോട്ട് നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാൻ പറ്റും എന്തായാലും താങ്കൾക്ക് ഒരു പെഡിക്യൂർ മാനിക്യൂർ കോംബോ ഞാൻ ബുക്ക് ചെയ്തെക്കട്ടെ ആ ഓക്കെ താങ്ക്യൂ ശെരി അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യതിട്ടുണ്ടെ അപ്പോൾ പതിനൊന്ന് മണിയാകുമ്പോൾ എത്തണം ശെരി താങ്ക്യൂ